ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിരമണീയമായ ഒരു രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി അതുപോലെ തന്നെ ലോകത്തിലെ ഒരുപാട് വലിയ വലിയ നദികള് അതുപോലെ പാടങ്ങള് തോടുകള് വയലുകള് കുന്നുകള് തുടങ്ങിയ ഒരുപാട് പ്രകൃതിരമണീമായൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നാൽ ആ പ്രകൃതി രമണീമായ ഇന്ത്യയെ ഓരോ കൊല്ലം കൂടുന്തോറും നമ്മുടെ ആ സൗന്ദര്യത നഷ്ടപ്പെട്ടുുകൊണ്ടിരിക്കുകയാണ് എല്ലാ കുന്നുകളും ഇടിച്ചുനിരത്തിക്കൊണ്ട് വയലുകളെല്ലാം നികത്തിക്കൊണ്ട് അരുവികളെല്ലാം മണ്ണിട്ടു മൂടിക്കൊണ്ട് ഇന്ത്യയുടെ എല്ലാ വിധത്തിലുള്ള പ്രകൃതി രമണീയതകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അരുവികളും മലകളും എല്ലാം നിരത്തിക്കൊണ്ട് അവിടെ ഫാക്ടറികളും ബിൽഡിംഗുകളും ഇന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതല് ജനങ്ങൾ താമസിക്കുന്ന ലോകമാണ് രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ ഇതുപോലത്തെ കൃഷികളെല്ലാം നടന്നിട്ടില്ലെങ്കിൽ ഒരുപക്ഷേ ഇന്ത്യ ഏറ്റവും വലിയൊരു പട്ടിണി ക്ഷാമത്തിലേക്ക് പോകും അതുപോലെ ഈ പ്രകൃതികളെല്ലാം ഇങ്ങനെ നിരത്തിക്കൊണ്ട് കഴിയുകയാണെങ്കില് നമുക്കറിയാം ഈ പത്തു വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നടന്ന പ്രകൃതി ദുരന്തങ്ങൾ ഒരുപാടുണ്ട് അതിൽ നിന്ന് ഒരുപാടു മനുഷ്യര് ഒരുപാട് മനുഷ്യര് മരണപ്പെട്ട വാർത്തകളെല്ലാം നമുക്കു വളരെ ദുഃഖകരമായി തോന്നുന്ന കാര്യങ്ങളാണ് ഇപ്പോള് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നെല്ലാം നമ്മള് വിട്ടുനിൽക്കണമെങ്കില് ഇത്തരത്തിലുള്ള കാര്യങ്ങളില് കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മള് വിട്ടുനില്ക്കണം അതുപോലെ മണ്ണുകൾ നികത്താതെ മറ്റു കാര്യങ്ങൾ ഒക്കെ നമ്മള് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഈ അടുത്തായിട്ട് ഞാന് ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നു പറയുന്നൊരു ഐ പി എൽ ഐ പി എൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഐ പി എല്ലിൽ അവരൊരു പദ്ധതി കൊണ്ടുവന്നിരുന്നു ഓരോ ഡോട്ബോളെറിയുമ്പോഴും ആ ഡോട്ട്ബോളിനു പകരം ഒരു മരം നടുക ആ പദ്ധതി കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അ ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഒരുപാട് അതിന് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ജനങ്ങളെ നമ്മൾ ബോധവാന്മാരാക്കേണ്ടതുണ്ട് ഇനിയും ഇതുപോലുള്ള വലിയ ദുരന്തങ്ങളെല്ലാം നേടാനുള്ള കെല്പ്പ് ഇന്ന് ഇന്ത്യക്കില്ല അത്രത്തോളം ജനങ്ങൾ നിറഞ്ഞിരിക്കുന്ന രാജ്യമാണ് സാമ്പത്തികമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ പിന്നോക്കത്തിലുമാണ് ഇന്ത്യ അപ്പോള് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളില്നിന്നെല്ലാം വിട്ടു നിൽക്കണമെങ്കില് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ തടയേണ്ടതുണ്ട് ഓക്കെ